ഹലോ ആ ഞാൻ പിന്നെ കാസർഗോഡിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു മറ്റന്നാൾ വീട്ടിൽ അപ്പോൾ ഒരു അൻ നൂറാൾക്കുള്ള സദ്യയാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത് അപ്പം അതിനാവശ്യാമുമുള്ള പച്ചക്കറി വേണം വേണമായിരുന്നു അതായത് എനിക്ക് ഇപ്പോൾ കുറച്ച് ആ ആ തക്കള് അതെ അല്ലേ എനിക്കൊരു ഇരുപത് കിലോ തക്കാളി വേണ്ടി വരും പിന്നെ അതുപോലെ പച് പിന്നെ പച്ചമുളക് പിന്നെ വറവിനായിട്ട് വേണ്ട ഇത് കോവയ്ക്ക വേണം പിന്നെ ഉള്ളി വേണം ഇതൊക്കെ എങ്ങനെയാണ് ഫ്രഷ് ആയിട്ട് കിട്ടുമോ സാധനങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് അതേ അല്ലേ പക്ഷേ ഇത് ആ അതെ ഞാൻ ആ അല്ല ക്യാഷ് ഒന്നിച്ച് തരാം നിങ്ങളിപ്പോൾ അത് എത്രയാകും എമൗണ്ട് സാധനം വാങ്ങുന്ന സമയത്ത് എത്ര അതുതന്നെ അത് ആ ആ ഓക്കെ അതങ്ങനെയാണെങ്കിലേ ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് തരേണ്ട നിങ്ങൾ അഡ്രസ്സ് നിങ്ങൾക്ക് അയച്ച് തരാം പിന്നെ കാശും അതേപോലെ തന്നെയാണ് ഞാൻ കാശ് ആയിട്ടല്ല ഗൂഗിൾ പേയ്ക്ക് ചെയ്ത് തരാം നിങ്ങൾക്ക് എനിക്ക് പക്ഷേ സാധനം നന്നായിരിക്കണം ഫ്രഷ് ആയിരിക്കണം എല്ലാ ഐറ്റമും ഞാൻ പറയുന്നത് പോലെ അത്രയും ഉണ്ടാവണം ഞാൻ പറയുന്ന എല്ലാ ഐറ്റം കിട്ടുമായിരിക്കും അല്ലേ എല്ലാ ഉണ്ടാവില്ലേ അവിടെ അതുതന്നെ ആ അതെ എല്ലാം കിട്ടണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു സദ്യയ്ക്ക് ഓർഡർ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാ സാധനം ഉണ്ടായിരിക്കണം ആ എല്ലാം ഫ്രഷ് ആയിരിക്കണം നിങ്ങൾ നോക്ക് അതെയല്ലേ അതെ അതെ വേണ്ടുള്ളൂ അത്ര അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ അതെ അതുതന്നെ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നോക്കി കണ്ട് നിങ്ങളെ വിളിക്കുന്നത് ഒരാളെ അന്വേഷിച്ചപ്പോൾ ഇവിടെ നല്ലതാണെന്ന് പറഞ്ഞു അതാണ് നിങ്ങളെ വിളിച്ചത് അപ്പം ഇത്ര ഐറ്റം ആ അതുതന്നെ ആ ഓക്കെ ഓക്കെ അത് നല്ല സന്തോഷമുള്ള കാര്യമാണ്

ആ അല്ല ക്യാഷ് ആവുമ്പം കേന്നേൻന് ചിലപ്പോൾ അങ്ങോട്ട് വാങ്ങാൻ വരേണ്ടി വരില്ലേ അപ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നില്ല എനിക്ക് നിങ്ങൾ ഞാൻ പറയുന്ന അഡ്രസിലേക്ക് അയച്ച് തന്നാൽ മതി അപ്പം ഞാനേ അയച്ച് തരുന്ന സമയം നിങ്ങൾക്ക് ഗൂഗിൾ പേ ആക്കാം നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി എത്രയായി എമൗണ്ട് എത്രയായി ഒന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അയച്ച് തരാം ആ ക്യാഷ് ഇട്ടുതരാം ആ ആ അതെ അതെ പിന്നെ ഇത് നിങ്ങൾ എവിടെയാണ് സ്ഥലം ഇതെവിടെയാണ് ശരിക്കും പാറകട്ടല്ലേ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം ഞാനേ ആ സമയത്ത് എന്നാൽ ഞാനേ ശരിക്കും സ്ഥലം ഇവിടെ കൂടെല്ലാണ് അപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ കുറേ ആളോട് ചോദിച്ചാൽ ആ ആ ആ ബുദ്ധിമുട്ടില്ല അടുത്തുതന്നെ എന്നാലും ആ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വരാനുള്ള സമയമില്ല പിന്നെ ഫംഗ്ഷൻ ആവുമ്പോഴേക്ക് എല്ലായിടത്തും ഓടണമല്ലോ വരാൻ സമയമില്ല ആ ആ ശരി ശരി അപ്പം ഞാൻ നിങ്ങൾക്ക് ഏതായാലും അതെ ഞാൻ നിങ്ങളെ വിളിച്ച് പറയാം അപ്പം ഈ നമുക്ക് വേണ്ട മെയിൻ സാധനം ഇതാണ് തക്കാളി ഇരുപത് കിലോ പച്ചമുളക് പിന്നെ ഉള്ളി പിന്നെ കോവയ്ക്ക ആ പിന്നെ അതെല്ലേ ആ ശരി ആ അതെ ആ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്സ് അപ്പം ഞാനിതെല്ലാം എനിക്ക് ആ ആ ശരി അപ്പോൾ ഓക്കെ താങ്ക്സ് അപ്പം ശരി ശരി ആ